നമസ്കാരം ഭാരതത്തില് ഒരുപാട് മതങ്ങളുണ്ട് അതില് കൂടുതലായിട്ടുള്ളത് ഹിന്ദുക്കള് മുസ്ലീങ്ങള് ക്രിസ്ത്യന്സ് ഇവര് ഇവര് ഇവരാണ് കൂടുതലായിട്ടുള്ളത് ഭാരതത്തില് എല്ലാവരും ഒന്നാണ് എല്ലാ മതസ്ഥരും ഒന്നാണ് അതിനെ വേര്തിരിവായിട്ടു കാണുന്നില്ല പരസ്പരം അവരവര് മതങ്ങളെ ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളെയും ബഹുമാനിക്കുന്നു അവരുടെ മറ്റുള്ള മതങ്ങളുടെ കാര്യങ്ങളെ നല്ല രീതി നല്ല രീതിയില് കണ്ട് അവരാചാരങ്ങളെ നല്ല രീതിയില് കാണുന്നുണ്ട് അന്ന് അവരാ മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളില് നിന്നെല്ലാം ആചരിക്കുന്നുണ്ട് ഭാരതം എപ്പഴും ഒന്നാണ് മത മതങ്ങള് വെറും ഒരു പേരു മാത്രമാണ് മതങ്ങളുടെ പേരില് ഭാരതത്തില് ഒരിക്കലും ഒരു പ്രശ്നങ്ങളോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഭാരതത്തിന്റെ സംസ്കാരം അങ്ങനെയാണ് ഭാരതത്തില് എല്ലാ എല്ലാ മതസ്ഥരും ഉണ്ട് എല്ലാവര്ക്കും തുല്യ പങ്കാളിത്തം ആണുള്ളത് തുല എല്ലാ മതസ്ഥര്ക്കും വേര്തിരിവില്ല നല്ല രീതിയില് ഭാരതത്തില് ജീവിച്ചു പോകുന്നു അതുകൊണ്ട് ഭാരതത്തിലുള്ള എല്ലാ മതസ്ഥരും ഒന്നാണ്